ആ ഞാൻ ഇങ്ങനെ ഒരു സര്ട്ട് വാങ്ങിയിരുന്നു ഇങ്ങനെ സൗദിഅറേബ്യയിൽ നിന്ന് അതിനൊരു പത്ത് നൂറ് നൂറ്റിപ്പത്ത് റിയാലോളം വില ഉണ്ട് ഒരു ഷര്ട്ടിന് നല്ല ഷര്ട്ടായിരുന്നു നല്ല ഫിറ്റ്നസ് സ്റ്റിച്ചിങ്ങൊക്കെ നല്ല ഫിറ്റ്നസ് ആയിരുന്നു നല്ല കളർ ആണ് പിന്നെ അലക്കിയിട്ട് കളര് പെയ്ഡ് ഒന്നും ആയിട്ടില്ല ഞാൻ ഇപ്പോ നാട്ടുപോരണ സമയത്ത് ഇപ്പോൾ ഒരു വേറെ സര്ട്ട് ഒന്ന് കൂടി വാങ്ങി മകനും വേണ്ടിയിട്ട് അതേ ബ്രാന്ഡിലുള്ള ബ്രാന്ഡട് സര്ട്ട് ആയിരുന്നു ചെറിയ ഒരു ചെക്സ് ആയിട്ട് ചെക്സ് ആയിട്ട് നല്ല സര്ട്ട് ആണ് അത് അതിന്റെ കളര് ചെയിഞ്ച് ഒന്ന് രണ്ട് സര്ട്ട് കൂടി വാങ്ങണമെന്നുള്ള ആഗ്രഹം ഒക്കെ ഉണ്ട് നല്ല സര്ട്ട് ആയിരുന്നു ഏകദേശം നമ്മളെ ഇന്ത്യന് മണി ഒരു പത്ത് ആയിരം ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറുപ്യയോളം വരും ആ സര്ട്ടിന്